ഈ കഠിനമായ കാലാവസ്ഥയിലും അതായത് ഇത്രയും മഴയും ഒക്കെയുള്ള ഈ സമയത്തും ഓഡർ ചെയ്ത ഫുഡ് വളരെ വേഗത്തിൽ തന്നെ കറക്റ്റ് സമയത്തു തന്നെ വീട്ടിലെത്തിച്ചു തന്നതിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ല അതുകൊണ്ടാണിങ്ങനൊരു ഫീഡ് ബാക്കിടാമെന്നു ഞാൻ വിചാരിച്ചത് ഇപ്പം ഞാനോഡർ ചെയ്തത് കോഴഞ്ചേരി സെൻറ്റ് ജോർജ്ജിൽ നിന്നാണ് ഓഡർ ചെയ്തതൊരു ബിരിയാണി ആയിരുന്നു മുപ്പത് മിനിറ്റിനുള്ളിൽ തന്നെ ഡെലിവറി നടക്കുമെന്നാണ് അതിൻ്റെ ആപ്പിൽ കാണിച്ചിരുന്നത് ഇരുപത്തഞ്ച് മിനിറ്റിനകം തന്നെ ആ ഡെലിവറി എനിക്കിവിടെ കിട്ടിയിരുന്നു അതും ചൂടോടെ തന്നെ മഴയാണെങ്കിൽ പോലും ഒന്നും എന്താ പറയുക തുളുമ്പി പോകാതെയോ ലീക്കൊന്നും ഇല്ലാതെ നല്ല രീതിക്കു തന്നെ ആഹാരം ഇവിടെ എത്തിക്കാനും ഇത്രയും ഇങ്ങനൊരു കാലാവസ്ഥയിൽ പോലും ജോലിയിൽ യാതൊരു വിധ പ്രശ്നങ്ങളുണ്ടാകാതെ നോക്കാനൊക്കെ കാണിക്കുന്ന ആ ഒരു മനസ്സിനും അതിനൊക്കെ വളരെയധികം നന്ദി പറയേണ്ടിയിരിക്കുന്നു